ഗോതമ്പ് പായസം അട പായസം സേമിയ പായസം ചെറുപയർ പായസം

പരിപ്പ് പായസം ഇതൊക്കെയാണ് ഉണ്ടാക്കൽ അതിൽ ഇഷ്ടമുള്ള പായസം ഗോതമ്പ് പായസമാണ് ഗോതമ്പ് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കലുണ്ട് പായസം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിക്കൊടുക്കൽ എൻ്റെ മകളൊക്കെ കുറേ കൊണ്ടുപോകും

ഗോതമ്പ് കുത്തണം ചേറണം അടുപ്പത്തിട്ട് വേവിച്ചണം ശർക്കര ഇടണം തേങ്ങ ഇടണം പൊടി ഇളക്കി വാരണം അങ്ങനെയാണ് അത് ഉണ്ടാക്കൽ പിന്നെ വറവ് ഇടണം എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള പായസമാണ് എല്ലാ പായസത്തിനെക്കാട്ടിലും എല്ലാ വീട്ടിൽക്കും കൊണ്ടുപോകലുണ്ട് എല്ലാ വീട്ടുകാർക്കും ഉണ്ടാക്കിക്കൊടുക്കലുണ്ട് ഇവിടെ അടുത്ത വീട്ടിലൊക്കെ പായസം ഉണ്ടാക്കൽ ഞാൻ ആണ്